ബോളിവുഡ് ഇന്ത്യയിലെ എല്ലായിടങ്ങളിലും ഫാഷൻ ട്രെൻഡുകളെ സ്വാധീനിച്ചിട്ടില്ല എന്നാൽ പലയിടങ്ങളിലും സ്വാധീനിച്ചിട്ടുമുണ്ട് ചില സ്ഥലങ്ങളില് ഫാഷൻ ട്രെൻഡില് പുരോഗമനം വന്നിട്ടില്ല എന്നാല് ചില സ്ഥലങ്ങളില് ഫാഷൻ ട്രെൻഡുകളെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഇഷ്ടപ്പെടുന്ന ബോളിവുഡ് സിനിമ സൽമാൻ ഖാൻ്റെ ഒരു ഫിലിം അതെനിക്ക് ഇഷ്ടമാണ് അതില് സൽമാന് ഖാനും അസിനും പക്ഷെ അതിലുള്ള വസ്ത്രധാരണം അസിൻ്റെ വസ്ത്രധാരണം ചിലയിടങ്ങളിലുള്ളത് ഇഷ്ടമാണ് അതുപോലെയൊന്ന് നോക്കി അത് അതുപോലെയൊന്ന് സൃഷ്ടിച്ചെടുക്കാൻ നോക്കിയിട്ട് അത്രത്തോളമൊന്നും എത്തിയില്ല പകുതിയൊക്കെയെ നന്നായിട്ടുള്ളൂ ബാക്കിയൊക്കെ കുളമായിപ്പോയി നന്നായില്ല പക്ഷേ മിക്കവാറും സ്ഥലങ്ങളില് ഫാഷൻ ട്രെൻഡുകളെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ ചില ഉള്ഗ്രാമം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്ര തന്നെ നില വന്നിട്ടില്ല പിന്നെ അതില് ഇഷ്ടപ്പെട്ട ചില സിനിമകളിലെ ഈയൊരു സിനിമയിലെ ഡ്രസ് ചില സിനിമകളിലെ ചില ഡ്രസ്സിനോടൊക്കെ താല്പര്യമൊക്കെയുണ്ട് പക്ഷെ അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് ഏകദേശം ചിലത് അടുത്തെത്തും ചിലത് ആകെ ചളമായിപ്പോകും പിന്നെ ഏകദേശമൊക്കെ ഫസ്റ്റ് ചെയ്യുമ്പോള് കുറച്ച് നന്നാവില്ല പിന്നെയൊക്കെ ഏകദേശമൊക്കെ ഇതായിപ്പോകും അതുപോലെ പക്ഷേ ഈ റെഡി എന്ന ഫിലിം ഇഷ്ടമാണ് അസിനും ചില വേഷങ്ങള് ചിലതുള്ള വേഷങ്ങളൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അതൊക്കെ ചെയ്യാനും നോക്കിയിട്ടുണ്ട് നോക്കി ഫുൾ സക്സസായില്ല എന്നാലും കുറേയൊക്കെ ആയി ഒരു പ്രാവശ്യം ചെയ്യുമ്പോള് പറ്റ ഇതാകും കുറേ ചളമായി പോകും പിന്നെയും ചെയ്തപ്പോള് ഏകദേശമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഏകദേശമൊക്കെ എന്നാലും ശരിക്കുമൊരു ശരിക്കുമുണ്ടായിട്ടില്ല എന്നാലും എല്ലായിടത്തും കുറെയൊക്കെ പുരോഗമനം ഫാഷൻ സിനിമകളിലെ ബോളിവുഡും എന്തെങ്കിലുമൊക്കെ എല്ലായിടങ്ങളിലും ഇനിയും എത്താനുണ്ട് കൂടുതലായ സ്ഥലങ്ങളിലും എത്തിയിയിട്ടുണ്ട് പക്ഷേ എന്താണ് പറയുക ഇനിയും ഫാഷൻ ട്രെന്ഡ് ഈ ഉൾഗ്രാമ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇനിയും അത് ഫാഷൻ ട്രെൻഡുകളൊക്കെ സ്വാധീനിക്കാനുണ്ട് പക്ഷെ ഈ ഫിലിമിലൊക്കെ ആക്ട്രസ്സിൻ്റെയും ആക്ടര് അവരുടെയൊക്കെ ഡ്രസ്സ് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ യുവ തലമുറയൊക്കെ അതുപോലെ ചെയ്യാൻ നോക്കുക എന്നാലും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്